ഫോട്ടോസ്സുകൾ എടുക്കാനായി എടുക്കാനായിട്ടു തന്നെ നമ്മൾ യാത്ര ചെയ്യണമെന്നില്ല നമ്മളൊരു വഴി പോകുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തിയവിടെ നിന്ന് ഫോട്ടോകളെടുക്കുക ആ ഫോട്ടോകൾ എടുക്കുന്നത് നമ്മളിപ്പം പോകുന്നത് ഇവിടെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മളി മൂന്നാറ് പോകുകയാണെങ്കിൽ പ്രകൃതി മനോഹരമായിട്ടുള്ള പ്രകൃതിയിലെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മളാസ്വദിക്കണമെങ്കിൽ നമ്മളങ്ങനെയാസ്വദിക്കാൻ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നതിപ്പോൾ ഉദാഹരണത്തിന് മൂന്നറ് ചെന്നു മൂന്നാറ് ചെല്ലുമ്പോളൊരു കൂട്ടം തേയില തോട്ടങ്ങളിങ്ങനെ നിൽക്കുന്നതു കാണുമ്പോൾ നമ്മളതിലിപ്പോൾ അവിടെ നിർത്തി വണ്ടി നിർത്തി നമ്മളവിടെ നിന്ന് ഫോട്ടോയെട്ക്കാൻ നമ്മളാഗ്രഹിക്കുന്നു നമ്മളൊരു ഫോട്ടോയെടുക്കുന്നു അതു പോലെ പിന്നെ കുറച്ചും കൂടി മുൻപോട്ടു പോകുമ്പോൾ മൃഗ മൃഗങ്ങളെ കണ്ടു കഴിയുമ്പോളവ അവിടെയൊരു ഫോട്ടോയെടുക്കാൻ തോന്നും കുറച്ചും കൂടി മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പൂക്കൾ കണ്ടു കഴിഞ്ഞാൽ ഫ്ലവേഴ്സുകളെ കണ്ടു കഴിഞ്ഞാലവിടെ നിർത്തി ഫോട്ടോയെടുക്കാൻ തോന്നും അതു പോലെ തന്നെ വലിയ മലകളിലൊക്കെ കയറിച്ചെല്ലുമ്പോൾ മലകളെ നിന്നു കൊണ്ട് ഫോട്ടോയെടുക്കാൻ തോന്നും അതു പോലെ തന്നെ പുഴകൾ അരുവികൾ ഗ്രാമീണ ഭംഗിയാസ്വദിക്കാനിഷ്ടമുള്ളവരും പിന്നെ നല്ല നല്ല പ്രകൃതിയിൽ നിന്നും ഗ്രാമീണതയിൽ നിന്നും മാറി നമ്മൾ ടൗണുകളിൽച്ചെന്നു കഴിയുമ്പോൾ അവിടെ കാണുന്ന ഫ്ലാറ്റുകളിലും വിമാനത്തിൻ്റെയടുത്തും ട്രെയിനിൻ്റെയടുത്തും ഏറോപ്ലെയിനിൽ കയറുന്നതായിട്ടും അങ്ങനെ പലതരം ഫോട്ടോസുകളെടുക്കാൻ നമുക്ക് തോന്നും അതു പോലെ വലിയ വലിയ വലിയ ഹോട്ടലുകളിൽ പിന്നെയതു പോലെയോരോ ഫങ്ഷൻസിനു ചെല്ലുമ്പോൾ അങ്ങനെയോരേ സ്ഥലങ്ങളൾക്കടെ ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ ഫോട്ടോസ് എടുക്കാൻ തോന്നുന്നു പിന്നെയത് തന്നെ ഇന്നിനി യാത്ര ചെയ്ത് യാത്രയിലൊക്കെ ഉടനീളം എവിടെയെങ്കിലുമൊക്കെ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമ്മൾ പോകുമ്പോൾ നമ്മളോരോ സ്ഥലത്തു കൂടി നമുക്ക് പോകണമെന്നുണ്ട് ഫോട്ടോയെടുക്കണമെന്നാഗ്രഹമുണ്ട് അങ്ങനെ ഫോട്ടോയൊക്കെ അതെല്ലാം ആസ്വദിക്കുക വരും നമ്മുടെ തലമുറകളിൽ നമുക്ക് കാലാകാലങ്ങളായിട്ട് നമ്മൾ നിൽക്കുമ്പോഴും നമുക്കിതിനെയെല്ലാം ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കണം ഏതു തരത്തിൽ ഉള്ളതായിരിക്കണം എന്നൊക്കെ നമ്മൾ അത് ആസ്വദിച്ച് നമ്മൾ പറയുന്നു ഫോട്ടോ ഫോട്ടോയെടുക്കുകയെന്നുള്ളത് നമുക്ക് വലിയ ഇഷ്ടമാണ് നമുക്കതിനായിട്ടൊക്കെ ഇങ്ങനെയോരോ എന്നാൽ ലേഖനങ്ങളിൽ കൂടെയിപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഫോട്ടോസ് എടുത്ത് നമുക്കിങ്ങനെയും ഇപ്പോളെല്ലാവർക്കും ഒരു പോലെ കിട്ടിയെന്നിരിക്കില്ല രണ്ടു പക്ഷികൾ തമ്മിലിരിക്കുന്നത് പക്ഷികൾ മൃഗങ്ങൾ ആനയെ കാണുമ്പോൾ എടുക്കുന്നതെന്നു തോന്നും പുലിയെ കാണുമ്പം അങ്ങനെയോരോ മൃഗങ്ങളുടെ അടുത്തു കൂടി ചെല്ലുമ്പം നമുക്കിവയെയൊക്കെ ഓരോ ഫോട്ടോയെടുക്കണമെന്നു നമുക്ക് തോന്നും അങ്ങനെ വരുമ്പോൾ നമ്മളവരെയൊരു ഫോട്ടോ എടുക്കുന്നു അതു പോലെ ഏതൊരു വ്യക്തിയുടെയും ഒരാഗ്രഹമായിരിക്കും ഫോട്ടോയെടുക്കുകയെന്നുള്ളത് അതിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്ന വഴിയിൽ നമുക്കെവിടെയെങ്കിലും വെച്ചു കാണുമ്പോൾ നമ്മൾ അതു പോലെ തന്നെ നമ്മുടെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം അങ്ങനെയൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോയെടുക്കാനായിട്ട് തോന്നും അങ്ങനെ ഫോട്ടോയെടുക്കുന്നു പിന്നോരോ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ പോകുന്നു ഫോട്ടോ അതു നല്ലതാണ് ഫോട്ടോ എടുക്കുക എന്നു പറയുന്നത് നമ്മൾ യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നതിനു വേണ്ടിയിട്ട് തന്നെയായിരിക്കുകയില്ല പോകുന്നത് നമ്മളെവിടെയെങ്കിലുമൊരു കാര്യത്തിനു പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴായിരിക്കും നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫോട്ടോയെടുക്കുമ്പോൾ കുഴപ്പമുണ്ടാകില്ല നമുക്കൊരിഷ്ടമുണ്ടാകും അതൊക്കെ ഉള്ളൂ ഇതുമായിട്ട് നമുക്ക് പറയാൻ ഉളളത് പിന്നേ ഫോട്ടോസുകൾ നമുക്ക് ഓരോരോ രീതിയിൽ വരുമ്പോൾ നമുക്ക് അത് എടുക്കാൻ പറ്റും എടുക്കുന്നത് നല്ലതാണ് നമ്മൾ വീഡിയോയിലാണ് ഫോണിലാണെങ്കിലും ക്യാമറയിലാണെങ്കിലും നമുക്ക് ഫോട്ടോ പകർത്തിയെടുക്കാനൊത്തിരി ഒഴുക്കുകൾ പുഴകളുടെ ഒഴുക്കുകളും വെള്ളങ്ങളുടെ ഒഴുക്കുകളൊക്കെ കാണുമ്പോൾ അതു പോലെ തന്നെ പ്രകൃതി നല്ല നല്ല പൂക്കളും മലകൾ എന്തിനേറെയിപ്പം നമ്മുടെ ആകാശവീഥികളിതെല്ലാം കാണുമ്പോൾ നമുക്ക് ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് തോന്നും അത് ഇനിയും മുന്ന് ഇന്ന സ്ഥലങ്ങൾക്കിടക്കു പോയി എടുക്കാൻ എനിക്കതിയായ ആഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ് ഒത്തിരി യാത്രകൾ ചെയ്യാനും ഞാനിഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ് ഏതെങ്കിലും അവസരങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ പറ്റുകയാണെങ്കിൽ ഫോട്ടോ എടുക്കണമെന്നുള്ളത് എൻ്റെ കാര്യമാണ് എൻ്റെയൊരു ആഗ്രഹമാണ് എടുക്കണമെന്നാണ് ഞാനും ചിന്തിക്കുന്നത് ഞാനാഗ്രഹിക്കുന്നത് ഇങ്ങനെ അത് പശ്ചാത്തലമായി ഫോട്ടോസുകളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇഷ്ടപ്പെടുന്ന എന്നിൽ നിന്നല്ല മറ്റുള്ള വ്യക്തികൾ കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഓരോർത്തരും കൂടി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഫോട്ടോയെടുക്കുക എന്നത് ഏറ്റവും വലിയൊരു ഒരു കാര്യമാണ്